ഞങ്ങൾ ഇതുവരെ കേരളത്തിന് പുറത്ത് ബൈക്കില് യാത്ര ചെയ്തിട്ടില്ല ഞങ്ങള് പോകാൻ അടുത്ത് തീരുമാനിക്കുന്നുണ്ട് ചില യാത്രകള് പിന്നെ മണാലി പോകാന് ഞങ്ങൾ നല്ല ആലോചിക്കുന്നുണ്ട് പോകാൻ യാത്ര പക്ഷെ കേരളത്തിൽ മൊത്തം ബൈക്കില് കറങ്ങിയിട്ടുണ്ട് പക്ഷെ കേരളത്തിന് പുറത്ത് ഇന്ത്യയില് പോയിട്ടില്ല പക്ഷേ മണാലി പോകാൻ ആഗ്രഹമുണ്ട് അതുപോലെ കാശ്മീര് അവിടെ പോയവരൊക്കെ പറഞ്ഞത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് മഞ്ഞ് മലകള് മഞ്ഞുകള് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലേസാണ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പോയവരൊക്കെ നല്ലതായിട്ട് പറഞ്ഞപ്പോള് നല്ല ആഗ്രഹിക്കുന്നുണ്ട് അവിടെയൊന്നൊക്കെ കറങ്ങാന് ഇതുവരെ പോയിട്ടില്ല പിന്നെ കാശ്മീർ അതുപോലെ കഴിയുമെന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ആലോചിക്കുന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ പോകും പ്ലേസും നല്ല അടിപൊളി പ്ലേസാണെന്ന് പറയുന്നുണ്ട് പിന്നെ മണാലി ഞങ്ങള്ക്ക് ആദ്യം ഞങ്ങള്ക്ക് പോകാന് താല്പര്യമുള്ള സ്ഥലം മണാലിയായിരുന്നു ഞങ്ങള് ഇങ്ങനെ പോകാന് തീരുമാനമെടുക്കുന്നു പക്ഷെ ഇതുവരെ പോയിട്ടില്ല ഇതുവരെ കേരളത്തിനകത്തെ കറങ്ങിയിട്ടുള്ളൂ ബൈക്കിൽ തന്നെ പോകാൻ ഞങ്ങള് തീരുമാനമെടുക്കുന്നുണ്ട് അതുപോലെ മുംബൈ സിറ്റി മുംബൈയിലും അവിടെ ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള പ്ലേസുകളുണ്ട് നല്ല യാത്രകൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇന്ത്യാ ഗേറ്റ് അതുപോലെ അവിടത്തെപോലെ കുറേ പ്ലേസസൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അതൊക്കെ കറങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് മണാലിയാണ് ആദ്യം ആഗ്രഹിക്കുന്ന സ്ഥലം പോകണം പക്ഷെ ഇതുവരെ ബൈക്കില് അവിടെ പോയിട്ടില്ല ഇന്ത്യയില് പോയിട്ട് കേരളത്തിന് പുറത്ത് പോയിട്ടില്ല പക്ഷെ പോകാൻ ഞങ്ങളൊരു പ്ലാന് ഇടുന്നുണ്ട് പിന്നെ മുംബൈ സിറ്റി കാശ്മീർ അവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണെന്ന് പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി പ്ലേസസുകളാണ് അതുപോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി പോയവരുമൊക്കെ നല്ല അടിച്ചുപൊളിച്ച് പോരാം നല്ല പോയത് ഏതായാലും വെറുതെയാകില്ല നല്ല സ്ഥലങ്ങള് കണ്ട് നല്ല പ്ലേസ് നല്ല പ്രകൃതിഭംഗി ആസ്വദിച്ച് അവിടുത്തെ ഓരോ നമ്മുടെ ഓരോ സ്ഥലങ്ങള് കണ്ട് നല്ല എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് പോരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞങ്ങളത് പ്ലാനിടുന്നുണ്ട് പക്ഷേ എന്താണ് നല്ല മുംബൈ സിറ്റിയിലൊക്കെ നല്ല അടിപൊളി ഓരോ പ്ലേസുകളുണ്ടെന്ന് പറയുന്നുണ്ട് ഓരോ എന്താണ് ഇഷ്ടംപോലെ സ്ഥലങ്ങള് അവിടെയൊക്കെ കാണാനുണ്ട് അവിടെയൊക്കെ ഒരു പാർക്കായിട്ടും മറ്റുള്ള ബീച്ചായിട്ടും അതുപോലെ നമ്മുടെയോരോ മീൻസ് ഓരോ അങ്ങനത്തെ ഓരോ ഇതൊക്കെയായിട്ടൊക്കെ ഓരോരോ ഇത് കാണാനുണ്ട് പോകണം കറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങളവിടെയൊക്കെ